കുടുംബം കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അതിൽ വ്യാപൃതരാകാൻ തയ്യാറകുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്താണെന്ന് വെച്ചാൽ പലവർക്കും പല ഇഷ്ടങ്ങളാണ് പല താല്പര്യങ്ങളാണ് അപ്പം ഈ ചിലപ്പം അപ്പം അമ്മക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മക്കൾക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ അല്ലെങ്കിൽ മീൻസ് നമ്മൾ താല്പര്യത്തിനനുസരിച്ചല്ലേ നമ്മളെന്തും ചെയ്യുക ആത്മാർത്ഥമായി ചെയ്യണമെങ്കിൽ നമുക്കതിനോട് താല്പര്യം ഉണ്ടാകണം അപ്പം ഈ കൃഷി കുടുംബം ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ താല്പര്യമില്ലാത്തത് അവർക്കതിനോട് ഇഷ്ടവും അതിനോട് അതിൽ സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കുടുംബം കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടെയാണ് ചെയ്യുക ഞങ്ങൾ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊക്കെ എല്ലാവരും കൂടി ഒരേ പോലെയാണ് പങ്കെടുക്കുന്നത് അപ്പം ചെല കുടുംബക്കാർക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് കൃഷിനോടോ അങ്ങനെ ഒന്നും താല്പര്യം ഇല്ലാത്തവരുണ്ടാകും വേറെ സംഭവങ്ങൾ കൈകാര്യം ചെലവഴിക്കാൻ താല്പര്യം അല്ലാത്തവർക്ക് കൃഷിയോ കൃഷിയും താല്പര്യം ഉള്ള ആൾക്കാരും ഉണ്ട് അപ്പം എനിക്കതിന് കുറിച്ച് കരുതുന്നത് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ചില അവരുടെ അവരവരുടെ ഇഷ്ടം ആണ് അവരവിടെ പ്രകടിപ്പിക്കുക അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ ആൾക്കാർ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു അസ്വസ്തത തന്നെയായിരിക്കും അവർക്കു ഉണ്ടാവുന്നത് അപ്പം അത് അവനവരുടെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ അതവർക്ക് ചെയ്യാനായിട്ട് ഒരു ആത്മാർഥതയോടെയും സന്തോഷത്തോടെയും ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കൃഷികൾക്ക് കുറേ പ്രാധാന്യം ഉണ്ട് നമ്മളിപ്പം കഴിക്കുന്ന എല്ലാ ഫുഡും കൃഷി ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതും പല ആൾക്കാർ കഷ്ടപ്പെട്ട് വെള്ളമൊഴിച്ച് വിത്തു വിതച്ച് കുറേ അതിന് ബാക്കിൽ കുറെ കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് അവർ നമുക്ക് അരിഭക്ഷണം അരിഭക്ഷണങ്ങളായാലും അതുപോലെത്തന്നെ ഫ്രൂട്ട്സായാലും വെജിറ്റബിൾസായാലും ഒക്കെ നമുക്ക് കിട്ടുന്നത് അവർ കൃഷി ചെയ്തുണ്ടാക്കുക ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അപ്പം കൃഷികൾക്ക് കൃഷി എന്ന് പറയുന്നത് വളരെ പ്രധാന്യമായി അതായത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു പ്രാധാന്യമുണ്ട് ഈ കൃഷികൾക്ക് കൃഷിയുണ്ടെങ്കിലെ നമുക്ക് ഫുഡ്ഡുള്ളൂ ഫുഡ് ഇല്ലെങ്കിൽ നമ്മൾ അപ്പം കൃഷിക്കാർക്ക് അതേപോലെ നമ്മൾ പ്രധാന്യം കൊടുക്കണം ചില നാടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കൃഷിക്കാർക്ക് തീരേ പ്രാധാന്യം കൊടുക്കാതെ അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നല്ല വലിച്ച് കയറ്റും അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ രാജ്യത്തും അതുപോലെത്തന്നെ കുറേ സിനിമകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കൃഷി എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമേറിയ ഒരു ഘടകമാണ് നമ്മളെ ജീവിതത്തിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത